ഒറീസായിലെ പൂരി എന്നു പറയുന്ന സ്ഥലം അത് വിനോദസഞ്ചാരം വിനോദസഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് അവിടുത്തെ പ്രത്യേകതയെന്നു പറയുന്നത് ഇത് ഒരു കടൽ തീരമാണ് ആഞ്ഞടിക്കുന്ന തിരമാലകൾ മീറ്റ് അതായത് ഒരു ആറ് അടി ഏഴ് അടി ഉയരത്തിൽ വരെ അതിൽ കൂടുതലായിട്ടും തിരമാലകൾ അടിച്ചുയരുന്ന ഒരു സ്ഥലമാണ് പൂരി ആ സ്ഥലം സന്ദർശിക്കാൻ വിദേശം നമ്മുടെ ഇന്ത്യക്കാർ മാത്രമല്ല വിദേശത്തുനിന്നും ധാരാളം ആൾക്കാർ അവിടെ എത്തുക പതിവാണ് അവിടെ ഏത് വിനോദ സഞ്ചാരികൾ വന്നാലും താമസിക്കാനുള്ള സൗകര്യം അതായത് സാധാരണക്കാർ മുതൽ സാമ്പത്തികമായി ഉന്നതഗതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ താമസിക്കാൻ സൗകര്യമുള്ള ഹോട്ടലുകൾ അവിടെ ലഭ്യമാണ് സമുദ്രത്തിൻ്റെ തിരമാലകൾ ഏകദേശം കടൽ തീരത്തേക്ക് ഒരു നൂറടി നൂറ്റി അൻപതടി വരെ കരയിലേക്ക് ആഞ്ഞടിച്ച് കയറി വരുന്ന ഒരു പ്രദേശമാണ് അവിടെ ധാരാളം ആൾക്കാർ അതൊരു ഉപജീവനമാർഗം മാർഗ്ഗമാക്കി ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സന്ദർശകർ ധാരാളമുള്ളത് കൊണ്ട് അവിടെ ഈ കടൽ സാധനങ്ങൾ ഉൽ വിറ്റ് അതിൽനിന്നും പണം ഉണ്ടാക്കുന്നു രണ്ട് കടലിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയി കടലിൽ നിന്ന് തിരിച്ച് കരയിലെത്തിക്കുന്ന ഒരു രീതിയും അവിടെയുണ്ട് പിന്നെ അവിടത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നല്ല സൗകര്യങ്ങൾ യാത്രയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഏജൻസികൾ അവിടെയുണ്ട് അതുപോലെ തന്നെ അതിനോട് അടുത്ത് അതിൻ്റെ പരിസര പ്രദേശത്ത് ഒരു അമ്പലം അവിടെ ഹിന്ദുക്കൾ ഒഴികെ മറ്റാർക്കും പ്രവേശനമില്ലാത്ത വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു അമ്പലം കൂടി അവിടെയുണ്ട് അത് പൂരിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അതിനോട് ചേർന്ന് അതിൻ്റെ പൂരിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററകലെ ഒരു മൃഗസംരക്ഷണ ശാല ഉണ്ട് അതായത് നമ്മൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ അതുപോലും മറ്റു മൃഗങ്ങളും ധാരാളമായി കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച ബംഗ്ലാവാണ് അവിടെ ഉള്ളത് അതിനോട് ചേർന്ന് അവിടെ നിന്ന് കുറച്ച് കൂടി പോയാൽ ചിൽക്കാജിയിൽ എന്ന് പറയപ്പെടുന്ന ഒരു തടാകം അതും അതിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു ധാരാളം ആൾക്കാർ അവിടെ പോകേം ആഴ്ചകൾ താമസിക്കേം അതിൻ്റെ പരിസരത്ത് താമസിക്കേം മറ്റു പല സ്ഥലങ്ങളിലും പോയി സന്ദർശിച്ച് അവിടത്തെ പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് പൂരിയും അതിൻ്റെ സമീപ പ്രദേശങ്ങളും